ഞാൻ ബൈക്കിൽ താണ്ടിയ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ആ പാതകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഇടക്ക് ഞാൻ ഒരു വയനാടൻ യാത്ര പോയിരുന്നു ഞാൻ ഒറ്റക്കാണ് വയനാടൻ യാത്ര പോയത് പോകുന്ന വഴിക്ക് ഞാൻ നമ്മുടെ ഈ നാഷണൽ ഹൈവേ വഴിയാണ് പോയത് വളരെ ദുർഘടം പിടിച്ച വഴികളും അതുപോലെ തന്നെ കുണ്ടും കുഴികളും നിറഞ്ഞ പാത തന്നെയായിരുന്നു നാഷണൽ ഹൈവേ കാര്യം എന്താന്നു വച്ചാൽ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ നാഷണൽ ഹൈവേ പൊളിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് റോഡെല്ലാം പൊളിച്ചിട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായ ഒരു റൂട്ട് കിട്ടത്തില്ല എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രശ്നം അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് വഴി നമുക്ക് അറിയാവുന്ന വഴി നാഷണൽ ഹൈ വേയിൽ കൂടി സഞ്ചരിക്കുവാണെങ്കിൽ നമ്മൾ വലിയ വലിയ അപകടങ്ങൾ ആയിരിക്കും വിളിച്ച് വരുത്തുന്നത് കാര്യം എന്ന് വച്ച് കഴിഞ്ഞാൽ ആ സത്യം പറഞ്ഞു കഴിഞ്ഞ ഒരു പോലീസിൻ്റെ ബാരിക്കേഡോ അല്ലെങ്കിൽ പീ ടബ്യൂ ലീയുടെ പി ഡബ്ലിയു ഡിയുടെ ഒരു സത്യം പറഞ്ഞാൽ ബാരിക്കേഡുപോലും അവിടെയെങ്ങും ഇല്ലാ എന്നുള്ള കാര്യമാണ് അപ്പുറത് കുഴിയാണ് എന്ന് പറഞ്ഞു തരാൻ ഒരു മനുഷ്യനെയോ അല്ല എങ്കിൽ സിഗ്നല് തരാൻ വേണ്ടീട്ട് ഒരു ബോർഡ് സൈൻ ബോർഡ് പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ പോലും ഉണ്ട് അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നാഷണൽ ഹൈ വേയിൽ കൂടി ഇപ്പോൾ വാഹനം ഓടിക്കാൻ പറ്റുകയുള്ളു കാര്യം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധ മാറിപ്പോയാൽ തന്നെ വലിയ അപകടം തന്നെയാണ് അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് ഈ കാര്യം ബൈക്ക് യാത്രികർക്കാണെങ്കിൽ ചുറ്റുമുള്ളത് നല്ല രീതിയിൽ വീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് ബൈക്ക് യാത്രികർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു പക്ഷെ അപകടങ്ങളും കാര്യങ്ങളും ക്ഷണിച്ചു വരുത്താതെ എങ്ങനെയെങ്കിലും ലക്ഷ്യ സ്ഥാനത്ത് എത്താൻ വേണ്ടി പറ്റും പക്ഷേ ഈ കാർ യാത്രികർക്കും ഈ നാല് ചക്ര വാഹനം ഒക്കെ ഓടിക്കുന്നവർക്കും വളരെ വെല്ലുവിളി തന്നെയാണ് ഈയൊരു സെക്യൂറി ബോർഡുകളോ ബാരികേടുകളോ ഇല്ലാത്തത് കാര്യം ഇപ്പോൾ മഴ സമയമാണ് മഴയും കൂടി പെയ്തുകഴിഞ്ഞഴിയുമെങ്കിൽ റോഡൊന്നും വ്യക്തമായിട്ട് ഒന്ന് കാണാൻ വേണ്ടി പോലും കഴിയുകയില്ല അപ്പോൾ നല്ല രീതിയിൽ തെളിഞ്ഞ ഒരു സൈൻ ബോർഡോ അല്ലെങ്കിൽ ഒരു ബാരിക്കേടോ ഒന്നും ഇല്ലാതെ വഴിതെറ്റിയ വഴിവരെ തിരിച്ച വിടാൻ വേണ്ടിട്ടുള്ളൊരു സംവിധാനമോ അവിടെയില്ല വ്യക്തമായി ഒരു റോയ്ഡ്പോലും കാണാതെ നമുക്ക് ലക്ഷ്യ സ്ഥാനത്ത് എത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം യാഥാർഥ്യം തന്നെയാണ് ഞാൻ പോയപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചത് അനുഭവിച്ചത് നമ്മുടെ ആ ഒരു മലപ്പുറം ആ ഒരു റോഡ് തന്നെയായിരുന്നു കാര്യം എന്ന് വച്ച് കഴിഞ്ഞാൽ ആ എറണാകുളത്തു നിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക് മുൻപ് നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴി ഒരുപാട് വളരെ തിരക്കുള്ള വഴി വഴിയും അതുപോലെ തന്നെ രാത്രിയായിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരെടുത്ത് ഒരു പക്ഷേ വഴിതെറ്റിപ്പോയിക്കഴിഞ്ഞാൽ വഴി ചോദിക്കാൻ കഴിയും നമ്മുടെ ലക്ഷ്യ സ്ഥാനത്തേക്ക് ശരിയായ വഴി തന്നെയാണോ പോകുന്നത് എന്ന കാര്യം പക്ഷേ ഈ റോഡ് എല്ലാം പൊളിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് കടകൾ റോഡിൻറെ സൈഡിൽ പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ നല്ല രീതിയിൽ വലിയ വലിയ ഗർത്തങ്ങൾ തന്നെയാണ് റോഡിൻറെ ഇരുവശങ്ങളിലും കാണപ്പെടുന്നത് അപ്പോഴേക്കും ഈ ആൾക്കാരുടെ സഞ്ചാരം ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ആൾക്കാരൊന്നും അവിടെ കാണില്ല അപ്പോൾ നമുക്ക് ആരോടും ചോദിക്കാൻ വേണ്ടിട്ടൊന്നും കഴിയില്ല നമ്മൾ പോകുന്ന വഴി ശരിയാണോന്നുള്ളത് എവിടെയൊക്കെയോ പോയി കയറി എങ്ങനെയൊക്കെയോ ഒന്ന് വയനാടെത്തി അപ്പോൾ വളരെ വല്ലാത്തൊരു മോശപ്പെട്ട ഒരു യാത്ര തന്നെയായി തോന്നി അതിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് വച്ചു കഴിഞ്ഞാൽ ഈ പാതകൾ തന്നെയാണ് ഇത്രക്കും വെല്ലുവിളി നിറഞ്ഞ പാതകൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരേക്കും ഞാൻ താണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് പറയാൻ വേണ്ടിട്ടുള്ളത്